ഇന്ന് എൻ്റെ സമൂഹത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ സ്പോർട്സ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടിട്ട് ഒരുപാട് കായിക മേഖലകളിൽ പ്രവർത്തി പ്രവർത്തിച്ചിട്ടും ഉണ്ട് പ്രവർത്തിക്കുന്നും ഉണ്ട് ഇത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സംസ്കാരത്തെയും കൂടെ അല്ലെങ്കിൽ നമ്മുടെ സ്വത്വ ബോധത്തെ ഒക്കെ ആളുകൾക്ക് നൽ ആളുകൾക്ക് സ്വത്വ ബോധം ഒക്കെ നൽകുന്നുണ്ട് ഇപ്പം കായികം ഇപ്പോൾ ഓരോ ഓരോരുത്തർ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ആയിക്കോട്ടെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് പോയി കളിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ ന നമുക്ക് തന്നെയാണ് ഒര് ഒരു വില ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്ക് മൂല്യങ്ങളെ നമുക്ക് കൈ വരിക്കാം അതുപോലെ ഇപ്പോൾ സ്പോർട്സിൽ ഒക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയൊക്കെ കളിക്കാൻ പോകുമ്പോൾ അത് നമുക്ക് ഈ സംസ്ഥാനത്ത് തന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും ഇപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെച്ചാണ് നമ്മൾ ഒരു സ്പോർട്സിലേക്ക് പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം വിജയം വേണം എന്ന രീതിയിലാണ് നമ്മള് അതിലേക്ക് ഏർപ്പെടുന്നത് അപ്പോൾ നമ്മള് സംസ്കാരത്തിൽ നമ്മുടെ സമൂഹത്തെയും എല്ലാവരുടെയും ഒരു പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരാള് ഇപ്പോൾ സ്പോർട്സിലേക്ക് പങ്കെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു നിലത്തന്നെയാണ് മാറുന്നത് ഇപ്പോൾ നമ്മുടെ മൂല്യങ്ങളും എല്ലാം തന്നെ മാറിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ അത് എന്ന് വെച്ചാൽ എൻ്റെ സമൂഹത്തിലും സ്പോർട്സിനെ പങ്ക് ഒരു വലിയ ഒരു പങ്ക് തന്നെയാണ് വഹിക്കുന്നത്